ഡ്രോയിങ് ക്ലാസ് എടുത്തിട്ടുണ്ട് ഡ്രോയിങ്ങിനോട് താല്പര്യമുണ്ട് അതനുസരിച്ചാണ് ക്ലാസ് എടുത്തത് എങ്കിലും ചിത്രരചനയുടെ ഉള്ളറകൾ മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ കൂടുതലായി എടുക്കാൻ സാധിച്ചില്ല ഒരു രൂപം കണ്ട് അത് അതേ പോലെ പകർത്തുന്നതിനാണ് കൂടുതൽ താല്പര്യം ഒരു ദൃശ്യത്തിൽ നിന്ന് ആ ദൃശ്യം വരയ്ക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരനുഭവമാണ് ഉണ്ടാകുന്നത്

അതിലേ ഓരോ ചിത്രത്തിൻ്റെയും സൂക്ഷ്മ അംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് ചിത്രം രൂപകൽപന ചെയ്യുന്ന സമയത്ത് നന്നായി ചിത്രരചന പഠിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ വര പൂർണ്ണമാകില്ല അതുകൊണ്ട് ഡ്രോയിങ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും തൃപ്തി വന്നിട്ടില്ല കൂടുതൽ പഠിച്ച് എങ്ങനെയാണ് ഓരോ ചിത്രം വരക്കേണ്ടത് എന്നുള്ള പൂർണ്ണ മായി ഗ്രഹിച്ചതിന് ശേഷം മാത്രം ചിത്രം വരച്ചാൽ മാത്രമേ അതൊരു കലാ സൃഷ്ടിയായി തീരികയുള്ളൂ ആയതിനാൽ നമ്മൾ ചിത്രകലയെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ വരയ്കേണ്ടതിൻ്റെയും അനുപാതം എന്താണെന്ന് മനസ്സിലാക്കി വേണം വരയ്ക്കാൻ അതുപോലെ തന്നെ ശില്പശാലയിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ശില്പശാല ചെയ്തിട്ടില്ല കുറെ അനുഭവങ്ങളും സർഗ സൃഷ്ടികളും ചെയ്ത ശേഷം മാത്രം ഒരു ശില്പശാല എടുക്കണം എന്ന ഒരു ലക്ഷ്യമാണ് മനസ്സിലുള്ളത് അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു